എനിക്കേറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഉത്തമമായി തോന്നിയത് ഇൻ്റെർനെറ്റ് വഴിയുള്ളതാണ് ആ അതില് കുറെ അത്യാവശ്യം സുഗമമായതാണ് നമുക്കേറ്റവും എളുപ്പം അത് ചെയ്യാൻ നമുക്ക് വേറൊരാളുടെ സഹായം വേണ്ടിവരില്ല പിന്നെ വെറുതെ ഫോമുകള് നമുക്ക് ഫില്ല് ചെയ്യണ്ട ആവശ്യം വരത്തില്ല നമുക്ക് ഒറ്റക്ക് തന്നെ ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇൻ്റെർനെറ്റിൽ നമുക്ക് മുഖാ മുഖം തമ്മിൽ തമ്മിൽ കാണും അനുയോജ്യമായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഫ്രഷാണെങ്കിൽ നമുക്കിപ്പം ഒരാളുടെ കൈയിൽ നിന്നും വേറൊരാളുടെ കൈയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണങ്കില് മറ്റതാണെങ്കില് അവിടെ പോയി ചെയ്യണം അതല്ലങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വഴിയുള്ളതാണ് ആ ഒരു സ്പോട്ടിൽ ആ ഒരു സമയം തന്നെ ചെയ്യാം അതെ പോലെതന്നെയാണ് നമ്മുടെ

കുറെ ബാങ്കില് കുറെ കാര്യങ്ങള് നമുക്ക് മുഖാമുഖം പോകുന്നതിനേക്കാളും നല്ലത് ഇന്റർനെറ്റ് വഴിയാണ് കാരണം അത് സെയിം എഫക്റ്റ് നമുക്ക് കിട്ടിയിരുന്ന് അല്ലെങ്കിൽ ആ ഒരു സമയം വേണ്ട സമയത്ത് കറക്റ്റ് കിട്ടും സമയത്ത് കിട്ടും പിന്നെ ഇന്റർനെറ്റിനുള്ളരു പോരായ്മാന്ന് വച്ചാൽ നമ്മുടെ സംശയങ്ങളങ്ങനെ പെട്ടന്ന് തീർക്കാൻ പറ്റത്തില്ല പക്ഷെ അതിനും ഇന്ന് കുറെ വഴികൾ ഉണ്ട് ഉദാഹരണത്തിന് യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ സംശയങ്ങൾ തീർക്കാം എല്ലാമൊക്കെ ചെയ്യാം പക്ഷെ അതൊക്കെയൊരു ഇരട്ടി പണിയാണ് എന്നാലും ഈ ഇന്റർനെറ്റുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം പക്ഷെ നെറ്റില്ലാത്ത കടകളിൽ ഭയങ്കരയിട്ട് അഡ്വാൻസായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്